ഹലോ ആ ഇത് ട്രാവൽ ഏജൻറ് അല്ലേ ആ ഞങ്ങൾ എറണാകുളത്തുനിന്നു വിളിക്കുന്നതായിരുന്നു നമ്മളീ വെക്കേഷനു വയനാട്ടിലേക്ക് വരാനൊരു പ്ലാനുണ്ടേ നമ്മളൊരു പതിനഞ്ചുപേര് കാണും നമ്മൾ ട്രെയിനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തേലും ക്യാബോ കാര്യങ്ങളോ എന്തേലും അറേഞ്ച് ചെയ്യാൻ പറ്റുവോ നിങ്ങൾക്ക്

ആ വല്ല നമുക്ക് ട്രാവലറോ അങ്ങനെന്തേലും വേണ്ടിവരും

നമ്മളിപ്പോൾ ഒരു ഈ നെക്സ്റ്റ് മന്ത് ഈ മന്തൊരു തെർറ്റീൻത് ഒക്കെയാകുമ്പോഴത്തേക്ക് എത്തും പതിമൂന്നൊക്കെ ആകുമ്പോഴാത്തേക്ക് എത്തും

ആ ഓക്കേ ആ ആ ഫുഡും കാര്യങ്ങളും നമുക്കവിടെ എങ്ങനെയാണ് റൂംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കെയർ ഓഫിലുണ്ടോ ഓക്കേ അപ്പോൾ അവിടെങ്ങനെയാണ് ഹോട്ടൽ റെസ്റ്റോറെന്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണോ

ആ ഓക്കേ എന്നാൽപ്പിന്നെ നമുക്ക് അവിടുന്നുതന്നെ അത് അറേഞ്ച് ചെയ്തുതന്നാൽമതി ഞങ്ങൾ പതിമൂന്നാം തീയതി ഒക്കെയാകുമ്പോഴത്തേക്ക് എത്തും ആ വേണം വേണം വെക്കേഷൻ ടൈമും ആണല്ലോ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വയനാട് പ്ലാൻ ചെയ്തേക്കുന്നത്

ആ ഓക്കേ മനസിലായി മനസിലായി ആ ഓക്കേ ഓക്കേ എന്തായാലും നമുക്ക് വന്നുകഴിയുമ്പോൾ നിങ്ങൾ ടോട്ടലായിട്ടൊരു ലിസ്റ്റ് നമുക്ക് ഇതാക്കിത്തന്നാൽ മതി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ പോവാം ഓക്കെ ആ വരുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം